മലയാളഭാഷ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷ തന്നെയാണ് അത് പെട്ടന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആര്ക്കും സാധ്യമല്ല കൊച്ചിലേ മുതല് പഠിക്കുന്ന പലര്ക്കും മലയാളം അറിയത്തുമില്ല അതാണ് മലയാളത്തിന്റെ മറ്റേതു ഭാഷകളാണേലും നമുക്ക് പെട്ടന്ന് പഠിക്കാം ഇംഗ്ലീഷ് എടുത്താലും ശരി അല്ലെങ്കില് ജര്മ്മന് എടുത്താലും ശരി സ്പാനിഷ് എടുത്താലും ശരി ഇല്ലാ എങ്കില് വേറെ ഏതു രാജ്യത്തെ ഭാഷ എടുത്താലും ശരി ഈ ഭാഷകളൊക്കെ നമുക്ക് നന്നായി പഠിക്കാന് സാധിക്കും മലയാള ഭാഷയില് നോക്കുമ്പോൾ ഒരുപാട് ഭാഷകളുണ്ട് ഈ മലയാള ഭാഷയിൽ ഓരോരുത്തരും ഓരോരുത്തരുടേതായ ജില്ലാ ശൈലിയിലാണ് സംസാരിക്കുന്നത് ഈ ജില്ലാ ശൈലിയില് സംസാരിക്കുമ്പോള് തന്നെ മലയാളത്തിന് അവിടെ തന്നെ ഒരുപാട് വേര്തിരിവുകളുണ്ടാകുന്നു മലയാളം ശെരിക്കും തമിഴില് നിന്ന് വന്ന ഒരു ഒരു ഒരു ഒരു ഭാഷയാണ് തമിഴ് സംസ്കൃതം കൂടിയ ഒരു ഭാഷ തന്നെയാണ് മലയാളം അതുകൊണ്ട് തന്നെ മലയാളവും തമിഴും തമ്മില് ഒരുപാട് സാമ്യങ്ങളുണ്ട് ഒരുദാഹരണത്തില് പറഞ്ഞാല് തമിഴര് പഴയത് എന്ന് പറയുമ്പോള് അവരുടെ ഭാഷയില് തൂയ തമിൾ എന്ന് പറയും ഈ തൂയ തമിഴ് എന്ന് പറയുന്നത് പഴയ തമിഴ് എന്നാണ് ഇപ്പോള് ആന്താവരും പുനര് നിര് നിര്മ്മീകര നിര്മ്മീകരിച്ച് ഇപ്പോള് അതിനെ പറയുന്നത് പുതുസ് എന്നാക്കി നോക്കുക എന്തും വണ്ണം വ്യത്യാസങ്ങളാണ് ഒരു മലയാള ഭാഷയില് ഇതൊരു ചെറിയ വാക്കിന്റെ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇതേപോലെ എടുക്കുകയാണെങ്കില് പലയിടത്തും പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം അവിടെ എടുക്കുകയാണെങ്കില് മലയാള ഭാഷയുടെ വേറൊരു വ്യതിയാനമാണ് നമുക്കവിടെ കാണാന് സാധിക്കുക മലയാള ഭാഷയാണ് പക്ഷെ തിരുവിതാംകൂര് ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു സര്ക്കിളില് വരുന്ന കുറച്ചു ഏരിയകൾ ഉണ്ട് അവിടെയാണ് ഈ അച്ചടിഭാഷ എന്ന് അറിയപ്പെടുന്നത് അത് വേറെ എങ്ങുമില്ല ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂര് എന്നൊരു എന്നൊരു ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതലായി അച്ചടി പത്രങ്ങള് എല്ലാം അച്ചടിച്ചു പോകുന്നത് കോട്ടയം എന്ന ചെറിയ സംസ്ഥാനത്താണ് മലയാള ഭാഷ നമുക്ക് എങ്ങനെ ഇനിയും പുനര് നിം നിര്മ്മീകരിക്കാം എന്നല്ല ചിന്തിക്കേണ്ടത് ഉള്ള ഭാഷ എങ്ങനെ നന്നായി പറയാം എങ്ങനെ നന്നായി ഉച്ചരിക്കാം എങ്ങനെ അത് നമുക്ക് എങ്ങനെ കൊണ്ട് പോകാം പലരും പല രാജ്യങ്ങളില് പോയി പല ഭാഷകള് പഠിച്ച് അത് മലയാളത്തിലേക്ക് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അധിനിവേശ ഭാഷയുടെ കാരണത്താല് മലയാളത്തിന്റെ

ഒരു നല്ലൊരു ഭാഗം തന്നെ ഇല്ലാണ്ടാകുകയാണ്